ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പല രീതിയിലുള്ള ഗോത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഗോത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ഓരോ സമൂഹങ്ങളാണ് അതായത് ഓരോ ആൾക്കാരില് അവരുടേതായ ഒരു ജാതിയിൽ പെട്ട ഗോത്രകലകളും ഗോത്രങ്ങൾ ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അവര് ഓരോ ഗോത്രത്തിൽ പെട്ടവരായിരിക്കും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് ജാതിയെ പോലെ തന്നെ അവര് അവരുടെ ഒരു കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഗോത്രങ്ങൾ ഒക്കെ ആയിട്ടാണ് അപ്പം അവര് പല രീതിയിലുള്ള ഗോത്ര കലകളൊക്കെ ഉണ്ട് ചിലപ്പോൾ അവർക്ക് മാത്രമായിരിക്കും ഈ കലകൾ ഒക്കെ അറിയുള്ളൂ അപ്പം അവര് നല്ല രീതിയിലാണ് ആ ഗോത്ര കലകളും കാര്യങ്ങളൊക്കെ കൊണ്ടു പോകുന്നത് അവരൊരു പൂർവ്വികര് ചെയ്തു കൊടുക്കുന്ന ഓരോ കലകളും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ആദിവാസി വിഭാ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള പാട്ടും കാര്യങ്ങളൊക്കെ അവരുടെ കൂട്ടം അതായത് ഓരോ തുള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ തന്നെയാണ് ഇവരുടെ ഗോത്ര വർഗ്ഗത്തിലുള്ള പാട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് അത് പല രീതിയിലുള്ള കലകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഗോത്രത്തിൽ പെട്ടവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓട്ടം തുള്ളല് അങ്ങനത്തെ കലകൾ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നല്ല രീതിയിലാണ് ഇവര് കൊണ്ടു പോകുന്നത് അതൊക്കെ നല്ല രസമാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം